അത് ഞാൻ വാടകയ്ക്കൊരു ക്യാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് അ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചുകഴിഞ്ഞാല് ഞാനും എൻ്റെ സുഹ്യത്തുക്കളും കൂടെ ഒരു സ്ഥലത്തു പോവാൻ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഞങ്ങള് ഞങ്ങള് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഒരു വിനോദമായ ഒരു കാര്യം ലൈഫ് ജീവിക്കാൻ വേണ്ടി ഒരു വിനോദമായ ഒരു കാര്യത്തിനുവേണ്ടി തിരുവനന്തപുരത്ത് പോവാൻ ഞങ്ങള് ആഗ്രഹിക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് നല്ല ശംഖുമുഖവും കടലുമെല്ലാം കണ്ട് ഒരു ഒരു ഒരഞ്ചാറു ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു എനിക്ക് ഇതില് യാത്രാച്ചിലവ് വളരെ വളരെ കൂടുതലാണ് അത് എങ്ങനെ അതിനെ കൊണ്ടുപോകണമെന്നെനിക്കറിയില്ല പക്ഷേ എങ്ങനെയേലും കൊണ്ടുപോയേ പറ്റത്തുള്ളൂ യാത്രയാണെങ്കിലും എന്തുവാണെങ്കിലും പിന്നീട് ഓരോ കിലോമീറ്ററിന് ഒരു കിലോമീറ്റർ എത്രയാകുമെന്ന് ഓരോ കിലോമീറ്റർ എത്രയായിരിക്കും ഇത് ഓരോ കിലോമീറ്ററിന് എത്രയാകാനായിരിക്കും സാധ്യത ഓരോ കിലോമീറ്റർ ട്രാവലെയ്യും എനിക്ക് തോന്നുന്നു പെട്രോളിനൊക്കെ ഇത്രയും രൂപയൊക്കെയാവാൻ സാധ്യതയുണ്ട് ഒരു പതിനഞ്ച് ദിവസത്തെ ട്രാവൽ ഒരു പതിനഞ്ച് ദിവസത്തേക്കാണ് ഞങ്ങള് പോകാൻ ആഗ്രഹിക്കുന്നെ സ്ഥലത്തിൻ്റെ സ്ഥലം തിരുവന്തപുരം തന്നെയാണ് ഞങ്ങള് പോകുന്നത് ഞങ്ങള് ഒരു ഒരു ജീവിത്തിലെ ഒരു ഒരു ഒരു നല്ല ഒരു എൻജോയ്മെൻറ്റ് വേണ്ടേ എപ്പോഴും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ലല്ലോ അപ്പോള് ഒരു യാത്ര പോവാണെങ്കിൽ അത് തന്നെ നമുക്കൊരു വലിയൊരു അനിവാര്യമായ കാര്യമാണ് യാത്ര ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നമ്മുടേതായ രീതിയില് കാര്യങ്ങള് മുന്നോട്ട് കൊണ്ടുപോവാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോള് അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാൻ പ പറ്റട്ടെയെന്ന് ഞാൻ നോക്കട്ടെ ഇപ്പോള് ട്ര ഒരു ഒരു ഒരു ഒരു ഒരു യാത്ര പോവുമ്പോള് അതിൻ്റെതായ ബുദ്ധിമുട്ടും ക്ലേശങ്ങളും ഉണ്ടായാലും കുഴപ്പമില്ല അതിനനുസരിച്ച് ട്ര യാത്ര ചെയ്യാൻ പറ്റുകയാണെങ്കില് അത്രയും ഉപകാരിക്കുന്ന കാര്യമായിരിക്കും